നമ്മള് വിചാരിക്കുന്നതുപോലെയൊന്നുമല്ല മരുന്നുകൾക്കൊക്കെ ഭയങ്കര തീപിടിച്ച വിലയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഇപ്പോള് ഒരു വീട്ടില് ഒരു കുടുംബത്തില് നാല് പേരുണ്ടെങ്കിൽ മൂന്നു പേരും രോഗികളാണ് ഒരു രോഗംപോലും ഇല്ലാത്ത മനുഷ്യരുപോലുമില്ല തൈറോയിഡ് അല്ലെങ്കില് കൊളെസ്ട്രോള് അല്ലെങ്കില് ഷുഗര് അല്ലെങ്കില് പ്രമേഹം അങ്ങനെ പല ഇപ്പോള് പിന്നെ ക്യാൻസറുപോലെയുള്ള രോഗം അപ്പോള് എത്ര നമ്മുടെ വീട്ടില് എത്ര വരുമാനം നമ്മള് കരുതിവച്ചാലും നമുക്കതൊന്നും തികയത്തില്ല അതിനെല്ലാം മരുന്ന് മേടിക്കാനുള്ള പൈസയേ നമുക്ക് ഉള്ളു പക്ഷെ നമ്മുടെ വീട്ടിലെ ചെലവിന് അപ്പോള് നമുക്ക് തികയത്തില്ല അപ്പോള് നമ്മളത് എത്ര ശതമാനം മരുന്നുകൾക്ക് മാറ്റിവെയ്ക്കുന്നെന്ന് ചോദിച്ചാൽ നമ്മളങ്ങനൊന്നും മാറ്റി വയ്ക്കാറില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കന്നേരം ആവശ്യമുള്ളത് നമ്മുടെ ശമ്പളം കിട്ടുന്നതിനകത്തുനിന്ന് എത്രയാണോ അന്നേരം കുറച്ച് മരുന്നെടുത്ത് മേടിച്ച് വയ്ക്കുന്നു പിന്നേ തീരും ഇപ്പോള് പിന്നെയാണെങ്കില് ഈ സർക്കാരിൻ്റെ ആരോഗ്യകേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സൗജന്യ മരുന്നുകള് ലഭിക്കുന്നെന്ന് പറഞ്ഞാല് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ബി പി എല്ലാണോ എ പി എല്ലാണോ എന്ന് നോക്കിയാണ് നമുക്കാ ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്നത് ബി പി എല് റേഷൻ കാർഡ് ആണെങ്കില് മാത്രമാണ് നമുക്ക് നരേന്ദ്രമോദിയുടെ പിന്നെ വിലകുറഞ്ഞ രീതിയിലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിലകുറഞ്ഞ മരുന്നുണ്ട് അപ്പോള് ആ അവിടെ ചെന്ന് നമ്മളാ മരുന്ന് മേടിക്കും അതും നമ്മുടെ റേഷൻ കാർഡ് ബി പി എല്ലാണെങ്കില് മാത്രം എ പി എല്ലാണെങ്കില് നമ്മള്ക്കതും കിട്ടത്തില്ല അപ്പോള് നമുക്ക് എങ്ങനെ വെച്ച് നോക്കിയാലും നമുക്ക് താങ്ങാൻപറ്റാവുന്ന അത്രേം വിലയല്ല ഇത് നിസ്സാരം ഒരു പാരസെറ്റാമോള് ഗുളിക മേടിക്കണോങ്കില്പോലും നല്ലൊരു തുക വേണം നമുക്ക് ഫ്രീയായിട്ടൊന്നും ഒരിടത്തുനിന്നും കിട്ടാറില്ല ഇതാണ് വാസ്തവം പിന്നെ നമ്മള് എല്ലാ ജീവിതവും ഒരു അഡ്ജസ്റ്റബിൾ പോലെ ജീവിച്ച് പോവുന്നു